കഴിഞ്ഞ വർഷം എനിക്ക് ഒരുപാട് ഒരുപാട് ഒരുപാട് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരുപാട് നാളുകളായിരുന്നു ഒരുപാട് നല്ല വർഷമായിരുന്നു കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്ത എന്നെ മച്ചി എന്നൊക്കെ പറഞ്ഞ് എല്ലാ ആവശ്യങ്ങൾക്കും കൂടി മാറ്റിനിർത്തിയവരെ ഞെട്ടിച്ചു കൊണ്ടായിരുന്നു ഞാൻ ഗർഭിണിയായത് ഗർഭാവസ്ഥയിലൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്താൻ ആൾക്കാർ ഉണ്ടായിരുന്നു എന്നാൽ പോലും എനിക്ക് നല്ലൊരു മകളെ കിട്ടി അവളുടെ ചിരിയും കരച്ചിലും എല്ലാം കളികളും കൊഞ്ചലും അതൊക്കെയായിരുന്നു എന്റെയൊരു സമാധാനം എന്നെ കുറ്റപെടുത്തിയവരെ മുൻപിൽ എനിക്ക് തലയുയർത്തി പിടിച്ചു നിൽക്കാൻ ഉള്ളത് എൻ്റെ മകളാണ് അവളാണ് എൻ്റെ ഭാഗ്യമെല്ലാം അവളുടെ ചെറിയ കരച്ചിൽ പോലും ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു അവളുടെ ചെറിയ ചിരിയിൽ ഞാനൊരുപാട് സന്തോഷിച്ചിരുന്നു അവളായിരുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാം എൻ്റെ ഭർത്താവും അവളും ഞാനും നമ്മളൊന്നിച്ചിട്ടുള്ള പല നിമിഷങ്ങളും എനിക്ക് ഒരിക്കലും ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ്